ഞാൻ എടുത്തൊരു ചിത്രം ചിത്രം അതായത് ഒരു ഫോട്ടോ എന്നു വെച്ചാൽ ഞാൻ പണ്ട് അതായത് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഞാൻ ഞാനെൻ്റെ ഫാമിലിയുമായിട്ട് ഒരു ട്രിപ്പ് പോവുകയായിരുന്നു അപ്പം ഇത് ജസ്റ്റ് ആദ്യമെൻ്റെ മനസ്സിൽ വന്നൊരു പിക്ചറാണത് ആ ട്രിപ്പിൽ എൻ്റെ ഫാദറുണ്ടായിരുന്നു മദറുണ്ടായിരുന്നു എൻ്റെ അനിയനും എൻ്റെ കസിൻസും ഗ്രാൻഡ് പേരെൻസുമെല്ലാമായിട്ടാണ് പോയത് അപ്പം ആ ഒരു പിക്ക് വളരെ ഒരു സ്പെഷ്യൽ പിക്കാണ് അതായത് എൻ്റെ ഹാർട്ടിൽ അതായത് എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു പിക്കാണത് അത് ഭയങ്കര ഇമോഷണലായിട്ടും പിന്നെ ഭയങ്കര നല്ലൊരു അതായത് ആ ഒരു പിക്ക് എനിക്കത് ഓർക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ മെമ്മറീസ് ആ ട്രിപ്പ് പോയ മൊത്തം ആ ഒരു ഫീലും വൈബുമെല്ലാം എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ അല്ല സോറി ട്രിപ്പ് ഛെ ഫോട്ടോ കാണുമ്പോൾ എനിക്കത് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഏതു സ്ഥലമാണ് പോയതെന്നു വെച്ചാൽ മറ്റേ വാഗമൺ കഴിഞ്ഞ് തേക്കടി തേക്കടിയെന്നു പറഞ്ഞൊരു സ്ഥലമാണ് ഞാനന്ന് പോയത് എൻ്റെ ഫാമിലിയുമായിട്ട് അപ്പം അന്നൊരുപാട് ഒരുപാട് ആക്ടിവിറ്റീസ് ലൈക്ക് മറ്റേ ബോട്ടിങ് പിന്നെ അവിടെ ഒരുപാട് പാർക്ക്സ് ഉണ്ടല്ലോ അതെല്ലാം പാർക്കുകളിൽ പോയി നല്ല ടൈം സ്പെൻഡ് ചെയ്തു വെറൈറ്റി പരമായ അനിമൽസ് പിന്നെ അവിടെ സൂ ഉണ്ടായിരുന്നു സൂ ഒക്കെ പോയി കണ്ടു ഞാനന്ന് ഭയങ്കര യങ്ങായിരുന്നു എനിക്കകപ്പം നല്ല രീതി എഞ്ചോയ് ചെയ്യാൻ പറ്റി വളരെ വളരെ ഒരു നല്ല രീതിയിൽ നല്ലൊരു ഫീൽ തരുന്നൊരു പിക്കാണത് അത് അതുതന്നെ മനസ്സിലിരിക്കുന്നൊരു പിക്ക് അത് ഈ അത് ആ പിക്കിന് എനിക്ക് എൻ്റെ ലാപ്പിൽ കാണുമ്പം എനിക്കിപ്പോഴും ആ പഴയ ഓർമ്മകളെല്ലാം തിരിച്ചു വരുന്നുണ്ട് പഴയ പിന്നെ അന്നു ചെയ്ത ഒരുപാട് ആക്ടിവിറ്റീസും ഒരുപാട് തമാശകളും പിന്നെ അന്നെൻ്റെ ഗ്രാൻ്റ് പേരൻസിൻ്റെ കൂടെ സ്പെൻ്റ് ചെയ്ത ടൈം അത് വളരെ പ്രഷ്യസായിരുന്നു അപ്പം കഥയായിട്ട് പറയുകയാണെങ്കിൽ അന്ന് വാഗമൺ കഴിഞ്ഞ് വാഗമണും വാഗമണല്ല തേക്കടി തേക്കടി പോയപ്പം അന്നൻ്റെ ഗ്രാൻ്റ്ഫാദർ ഉണ്ടായിരുന്നു അപ്പം ഗ്രാൻ്റ്ഫാദറൊപ്പം ഭയങ്കര ട്രാവൽ ഇന്തൂസിസ്റ്റ് ലൈക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് അപ്പം ഗ്രാൻ്റ്ഫാദർ ഒരുപാട് ഒരുപാട് കാര്യങ്ങളെനിക്ക് പറഞ്ഞു തന്നു പല പല മരങ്ങളുടെ പ്രത്യേകതയും അവരിങ്ങനെ അവർ അവിടെയെല്ലാം എവിടെയൊക്കെ ട്രിപ്പ് മരങ്ങളുടെ ഒരു ചരിത്രവും പിന്നെ അവിടെ അനിമൽസ് ഉണ്ടെന്ന് ഒരുപാട് വൈൽഡ് ആനിമൽസിനെ കണ്ടു അതിൻ്റെ അവരുടെയൊരു പ്രത്യേകത അവരുടെ ഒരു ഫൺ ഫാക്ട്സ് എല്ലാം എൻ്റെ അടുത്ത് എൻ്റെ ഗ്രാൻ്റ്ഫാദർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഞാൻ നല്ല രീതിയിൽ ടൈം സ്പെൻ്റ് ചെയ്തു ആ അപ്പം ഇതൊക്കെയാണ് ആദ്യം എൻ്റെ മനസ്സിൽ ആ ഒരു പിക്കിനെപ്പറ്റി ഓർക്കുമ്പോൾ വന്ന ഒരുപാട് കാര്യങ്ങൾ അന്ന് ബോട്ടിങ്ങിനൊക്കെ പോയിരുന്നു അന്ന് ബോട്ടിങ്ങിനൊക്കെ പോയപ്പോൾ എൻ്റെ എന്താ കൊച്ചനിയൻ ചെറുതായിട്ടൊന്നു വെള്ളത്തിൽ വീണിരുന്നു പക്ഷെ കുഴപ്പമില്ലാതെ തിരിച്ചെടുത്തു അപ്പം അതൊക്കെ ഒരു കോമഡി മൊമെൻ്റൊക്കെയായിരുന്നു എന്നാലും കോമഡിയല്ല എന്നാലും ഒരു കോമഡി മൊമെൻ്റൊക്കെയായിരുന്നു പിന്നെ അങ്ങനെ ആ